വിദേശ യാത്ര ഇതുവരെ പോയിട്ടില്ല പിന്നെ എനിക്ക് പാസ്പോർട്ടില്ല പിന്നെ വിദേശ യാത്ര പോകാന് വിദേശയാത്ര കൊണ്ടുപോകാന് ആളില്ല പിന്നെ ഭാഷ വലിയൊരു തടസമാണ് ലോകത്തുള്ള വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും കഴിയണം പിന്നെ പിന്നെന്താണ് ലോകത്തുള്ള എല്ലാ ഭാഷ പിന്നെ ലോകത്തുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിന് പറ്റണം പിന്നെ പറ്റണം എന്നില്ല അതാലോചിക്കുമ്പോൾ വലിയൊരു തടസമാണ് ആരോഗ്യം വലിയൊരു തടസമാണ് പിന്നേ പിന്നെന്താണ്

നമുക്ക് ആരോഗ്യമുള്ള കാലത്തേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ